ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട്

ഏഴ് മണി മുതൽ എത്ര മണി വരെ

ഇത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറ്റണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് തന്നെ വർക്ക് ചെയ്യുകയാണോ അത് അവിടെ എങ്ങനെയാണ് മറ്റെ ഇതുണ്ടോ ഇ എം ഐ ഉണ്ടോ കൊടുക്കും അല്ലേ കൊടുക്കും ആ ആ ആ

പുതിയ പുതിയ പുതിയതും ഉണ്ടല്ലേ ആ ആ ആ സെക്കൻഡ് ഹാൻഡ് എടുക്കുമോ അവിടെ ആ സെക്കൻഡ് ഹാൻഡ് എടുക്കുമോ ആ ആ ആ ആ ആ ആ ആ ആ ആ നമുക്ക് എന്നാൽ അത് ഡിസ്പ്ലേ മാറ്റാതെ ചെറിയ പൈസയിൽ ഉള്ളത് ചെയ്യാം അ ഇ എം ഐ ഒക്കെ അടച്ച് ഞാൻ എടുക്കുമ്പോൾ ഒരുപാട് പൈസയും അതുമാതിരി വില കൂടുകയില്ലേ ഇത് ഇപ്പം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തിൽ ഒതുങ്ങുകയില്ലേ കേസ് ആയിക്കോട്ടെ ഞാൻ ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച അല്ലേ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ പോരെ ആയിക്കോട്ടെ ശരി